ഹലോ എൻ്റെ പേര് അർജുൻ എസ് കുമാർ അപ്പോൾ ഞാൻ ഒരു പുതിയ സിം എടുത്തായിരുന്നു വിഐ ആണ് വോഡഫോൺ ഐഡിയ അപ്പോൾ അതിന് ഏതൊക്കെ കയറ്റിയാൽ എനിക്ക് നല്ലത് ആണപ്പോൾ നിങ്ങൾ ഏതാണ് സജസ്റ്റ് ചെയ്യുന്നത് ഏത് പ്ലാനാണ് സജസ്റ്റെ് ചെയ്യുക ഏതാണ് ഏറ്റവും നല്ലത് എനിക്ക് എന്താണ്ന്ന് വച്ചാൽ ഒരു ദിവസം രാവില മുതൽ വൈകുന്നേരം വരെ യൂസ് ചെയ്യാനുള്ള ഒരു ഒന്നര ജിബിൻ്റെ അത് അതിനൊക്കെ എത്ര റേറ്റ് അതൊക്കെ എന്താണ് അത് നൈറ്റ് അൺലിമിറ്റഡ് ആണോ ഒരു ഫൈ ജി കിട്ടാൻ ഫൈ ജി കിട്ടുമോ ഈ വിഐയിൽ എനിക്ക് മാറ്റാനാണ് സിം ഒന്ന് മാറ്റാനാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതാണ് നല്ലത് നല്ല സിം ഏതാണ് നല്ല പാക്ക് അല്ലെങ്കിൽ ഇത് വിഐയിൽ തന്നെ നല്ല പാക്ക് ആയാലും മതി

ഓക്കെ ഓക്കെ ഇത് അല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഓക്കെ എന്നാൽ ഞാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് കയരുന്നായിരിക്കില്ലേ നല്ലത് വിഐയിൽ